ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഒന്ന് ഒന്ന് രണ്ട് രണ്ടായിരത്തി ഒന്ന് അഞ്ച് പത്ത് രണ്ടായിരത്തി പത്ത് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന്